വയനാടിലെ രാഷ്ട്രീയം എന്നു പറയുമ്പോൾ രണ്ട് പാർട്ടിക്കാരാണ് ഇവിടെ അധികവും മത്സരിക്കുന്നത് ഒന്ന് യൂ ഡി എഫും രണ്ടാമത്തെ എൽ ഡി എഫുമാണ് ഇവരുടെ രണ്ടുപേരുടെയും ഭരണമാണ് മാറി മാറി വരുന്നത്

വയനാടിൽ മൂന്ന് മണ്ഡലങ്ങളാണ് അതിൽ കേളു സിദ്ധിഖ് എന്ന ആൾക്കാരൊക്കെയാണ് എം എൽ എമാരായിട്ട് നിൽക്കുന്നത്

പിന്നെ ഭരണത്തിൻ്റെ കാര്യം ഇപ്പം എൽ ഡി എഫും യു ഡി എഫും ചില മണ്ഡലങ്ങളിൽ മാറി മാറി നിൽക്കുന്നുണ്ട് ഭരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിലൊന്നും അല്ലെങ്കിലും ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഭരണം പോവുന്നുണ്ട്